ഞങ്ങളുടെ നാടെ ഞങ്ങളുടെ നാട് ഇടുക്കിയാണെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കൃഷികളുണ്ട് ഏലം തേയില ഗ്രാമ്പു ജാതി കൊക്കോ കുരുമുളക് കാപ്പിക്കുരു അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കൃഷികളും ഞങ്ങളുടെ നാട്ടിലുണ്ട് എല്ലാ നാണ്യവിളകളും ഒന്നാമതായിട്ട് ഏലത്തിൻ്റെ കാര്യം ഏലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടങ്കിൽ ഇപ്പം ഏലക്കായ്ക്ക് നല്ല വിലയാണെ ഇപ്പം ഏലക്കായ്ക്ക് നല്ല വിലയുണ്ട് പിന്നെ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് ഏലമൊക്കെ ഉണങ്ങി ഒരു വക ഭയങ്കര ചൂടായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഏലം കർഷകരായ ഞങ്ങളൊക്കെ പിന്നെ നല്ല വേനലൊക്കെയാകുമ്പോഴ്ത്തേനും വെയിലൊക്കെ അടിച്ച് ഉണങ്ങി ഉണങ്ങി അധികമായിട്ട് പോകും പിന്നെ മഴയൊക്കെ പെയ്ത് വരുമ്പോഴ്ത്തേനും നല്ല വേനലൊക്കെയാകുമ്പോഴ്ത്തേക്കും എല്ലാവരും വെള്ളമൊക്കെയടിച്ച് എന്നും വെള്ളം നനക്കണം വെള്ളവില്ലാത്ത സ്ഥലങ്ങളിലക്കെ ആണെങ്കി എന്നും ഏലവെല്ലാം ഒണങ്ങി കരിഞ്ഞ് പോവും പിന്നെ അതിൻ്റെ ചിമ്പ് ശരം എല്ലാം ഉണങ്ങി കരിഞ്ഞുപോയി ആകെ നഷ്ടത്തിലായി ഇപ്പം ഏലത്തിന് വളമാണെങ്കിലും മരുന്നാണെങ്കിലും മേടിക്കണമെങ്കിൽ ഭയങ്കര പൈസയാ വളം മരുന്ന് പിന്നെ മഴക്കാലമാകുമ്പോൾ ഏലം ചീഞ്ഞ് പോകും ചീച്ചലെന്ന് പറഞ്ഞ് പല പല രോഗങ്ങൾ കയറും കരിച്ചിലുണ്ട് പിസേറിയുണ്ട് അങ്ങനെ പല പല രോഗങ്ങളുണ്ടതിന് പിന്നെ മഴക്കാലം ഒക്കെയാവുമ്പോഴത്തേനും ഭയങ്കര ചീച്ചിലായിരിക്കും ഏലത്തിന് ചീച്ചിൽ കയറി കഴിയുമ്പോഴ്ത്തേനും പിന്നെ എല്ലാം ചീഞ്ഞ് ചീഞ്ഞ് ഓരോ ഭാഗവും ഓരോ ഭാഗവും ചീഞ്ഞ് ചീഞ്ഞ് നശിച്ച് പോകും ഇപ്പം ഇടുക്കിയിൽനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല നല്ല രീതിയിൽ ഏലം ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് പകുതിയിൽ മുക്കാൽ ഭാഗവും പിന്നെ അതുകൊണ്ട് ഈ നാട്ടിലുള്ള കർഷകർക്കാന്ന് പറഞ്ഞാലും ഏലത്തിന് വില കയറുന്ന സമയത്ത് നല്ല രീതിയിൽ കൃഷിയൊക്കെ ഉള്ളവർക്ക് നല്ല കാര്യമാണ് പിന്നെ ഈ നാട്ടിലെ കൃഷിക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂലിപ്പണിയൊക്കെ എടുക്കുന്നവർക്കാന്ന് പറഞ്ഞാലും ഈ നാട്ടിലെന്നും തന്നെ പണിയുണ്ട് പണിയുള്ളത് കൊണ്ട് നമ്മൾ നല്ലയൊരു കാര്യമാണ് പണിയൊക്കെയുള്ളത് പിന്നെ ദിവസം അഞ്ഞൂറ് രൂപയാണ് സ്ത്രീകൾക്കാണങ്കിലും അഞ്ഞൂറ് രൂപ പണിക്കൂലിയാണ് പുരുഷന്മാർക്കാണെങ്കിൽ തന്നെയും ദിവസം എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ പണിയുണ്ട് അങ്ങനെ ഒരു ദാരിദ്ര്യ മേഖലയല്ല ദാരിദ്ര്യം വലിയ കൂടുതലായിട്ടുള്ള മേഖലയല്ല ഏലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടങ്കിൽ ഏലക്കായ്ക്ക് വില കയറുംതോറും ഇവിടങ്ങളിലുള്ള എല്ലാ മനുഷ്യരും ഏലം കൃഷി ചെയ്ത് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നവരാ അവർക്കൊക്കെ ഒരുപാട് ആവശ്യ സമയത്തൊക്കെ വെള്ളമൊക്കെ കിട്ടുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇപ്പം വെള്ളമില്ലാതെ വരുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പം പിന്നെ കായ ഒരുപാടായി കഴിയുമ്പോഴ്ത്തേനും ഏലക്കായുടെ വിലയങ്ങ് കുത്തനെയങ്ങ് കുറയും കുത്തനെയങ്ങ് കുറഞ്ഞ് കഴിയുമ്പോഴ്ത്തേക്കും പിന്നെ അത് ഭയങ്കര ഒരു നഷ്ടമാട്ടോ കാരണം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഏലത്തിന് ഭയങ്കര വളത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ ഒരു ദിവസം മരുന്നടിക്കണേലും എല്ലാത്തിനും ഭയങ്കര വിലയാ മരുന്നിനൊക്കെ എലത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ ഉദയഗിരിയിലുള്ളവരെല്ലാവരും തന്നെ ഏലത്തിന് വില കയറുമ്പം ഞങ്ങൾക്ക് കുഴപ്പം ഇല്ല പിന്നെ തേയില തേയില എന്ന് പറഞ്ഞാലും ഇവിടങ്ങളിലും നല്ല രീതിയിൽ തേയിലയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയിലക്കും അതിൻ്റേതായ കേടും കാര്യങ്ങളൊക്കെ ഉണ്ട് തേയിലക്ക് അന്നം ചുരുള് തേയിലയുടെ മണ്ടയൊക്കെ ചുരുണ്ട് ഉണങ്ങി പോയി കഴിയുമ്പോൾ തേയിലക്കൊരു കേടുണ്ട് അതിലും മരുന്നടിക്കുകയും എല്ലാം ചെയ്യണം മരുന്നൊക്കെ അടിച്ചാണ് പിന്നെ അങ്ങനെ തേയില കൊണ്ട് വരുന്നത് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയില എല്ലാവരും കൈ കൊണ്ടാ എടുക്കുന്നത് കൈ കൊണ്ടെടുത്ത് കൈ കൊണ്ടെടുക്കുന്നത് കഴിഞ്ഞ് നല്ലതിപ്പം കുറേ സമയങ്ങളായതുകൊണ്ട് തേയില ഇപ്പം എല്ലാവരും മെഷീനാ എടുക്കുന്നത് മെഷീൻ എടുക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട് കാരണം തേയില ഈ വെയിലത്തൊക്കെ നിന്ന് കൈ കൊണ്ടെടുത്തെടുത്ത് മനുഷ്യർക്ക് ഭയങ്കര അസുഖങ്ങളാ അസുഖങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടങ്കിൽ തേയിലയക്കെ കൈകൊണ്ടെടുത്ത് കഴിയുമ്പത്തേനും വാതം പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മെഷീൻ എടുക്കുന്നത് കൊണ്ട് മൂന്നും നാലും ദിവസം എടുക്കുന്ന കൈ കൊണ്ടെടുക്കുന്നതൊക്കെ ഇപ്പം മെഷീനായത് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അവർ തീർക്കും ഒറ്റ ദിവസം കൊണ്ട് തീർന്ന് ഇപ്പം ഒരു ദിവസം കൊണ്ട് തീർത്ത് കഴിയുമ്പം അവർക്ക് അതും നല്ല എളുപ്പം ഉള്ള പരിപാടിയാണ് എളുപ്പം ഉള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി എളുപ്പം ഉണ്ട് പിന്നെ ഈ വെയിലത്തക്കെയുള്ള കാര്യങ്ങളും അങ്ങനെയെല്ലാം വന്ന് കഴിയുമ്പം അവർക്ക് ഭയങ്കര പാടാണ് പിന്നെ കാപ്പിയുണ്ട് കാപ്പിക്കൊക്കെ കാപ്പിക്കുരുവിനൊക്കെ ഇപ്രാവശ്യം നല്ല വിലയാ കാപ്പിക്കുരുവിന് നല്ല വില കയറിയിട്ട് അവർ നൂറ് ഇരുന്നൂറ് രൂപ അടുത്തങ്ങാണ്ട് ഉണ്ട് കാപ്പിക്കുരുവിന് വില ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാധനത്തിന് അതാത് വർഷം ഇപ്പം വെയിൽ കുറവാ ഏലം കുറവാകുമ്പോൾ അതിന് വില കയറും തേയില ഇല്ലെങ്കിൽ അതിന് വില കയറും അങ്ങനെയുള്ള കാര്യങ്ങളാണിവിടെ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കാലത്തും ഞങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരു മേഖലയാണിവിടെ അങ്ങനെ പിന്നെ കുരുമുളക് കുരുമുളകും അതിൻ്റെ സീസണീ മാത്രമേ പറിക്കാൻ പറ്റത്തുള്ളൂ കുരുമുളകിൻ്റെ സീസണക്കെ ആയി കഴിയുമ്പോഴ്ത്തേനും ചില വർഷങ്ങളിൽ കുരുമൊളകിന് നല്ല വില കയറും ചില വർഷങ്ങളിൽ കുരുമുളകിന് കുത്തനെ വില ഇടിയും പിന്നെ ഗ്രാമ്പൂ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമ്പൂവിനും നല്ല രീതിയിലൊക്കെ വില കയറും കയറുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് മഴതൂളുന്നു മഴ തൂളി കഴിയുമ്പോഴ്ത്തേക്കും ഈ കുരുമുളകിങ്ങനെ കേട് വരും മഴ തൂളി നിൽക്കുമ്പഴ്ത്തേനും കേട് വന്ന് കഴിയുമ്പം അതിൻ്റെ തൂക്കത്തിൽ കുറവ് വരും കുറവ് വന്ന് കഴിയുമ്പോഴ്ത്തേനും തൂക്കത്തിൽ കുറവ് വന്ന് കഴിയുമ്പോഴ്ത്തേനും നഷ്ടമാണ് നഷ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ പ്രാവശ്യങ്ങളും ഓരോ കൃഷികളെ ആശ്രയിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് അങ്ങനെയൊരു നഷ്ടം വന്ന് കഴിയുമ്പോഴ്ത്തേനും അകെ വിഷമത്തിലാണ് പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു ജാതി ജാതിക്ക ഒക്കെ എന്ന് പറഞ്ഞാലും നല്ല വിലയുണ്ട് നല്ല വിലയിലൊക്കെ തന്നെ പോകുന്നു അത് തന്നെ വലിയ കാര്യമാണ് ഞങ്ങളെപ്പോലുള്ളവരെ ആശ്രയിച്ച് നോക്കുമ്പം അത് വലിയ കാര്യമാണ്